ഹലോ ഹലോ ഹോട്ടൽ നന്ദനം അല്ലേ ആ ഞങ്ങൾ ഇവിടെ നിന്ന് രാജകുടിയിൽ നിന്നായിരുന്നു വിളിക്കുന്നത് ഞങ്ങൾ ഫുഡ് ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതുവരെയും കിട്ടിയില്ലല്ലോ ഇന്ന് ഒരു നാലു മണി ആയപ്പോഴാണ് ഓഡർ ചെയ്തത് പെട്ടെന്ന് തന്നെ വരണം ഞങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് അതുകൊണ്ട് വേഗം വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ലല്ലോ പൊറോട്ടയും ബീഫും അതുപോലെ തന്നെ ഫ്രൈഡ്ര് റൈസും ആയിരുന്നു ഓഡറ് ചെയ്തിരുന്നത് ഞങ്ങൾ ഒരു അഞ്ച് മണിക്ക് ഉള്ളിലായിട്ട് എത്തിക്കാമെന്നായിരുന്നു പറഞ്ഞായിരുന്നത് ഞങ്ങൾ എല്ലാ മിക്കപ്പോഴും ഞങ്ങൾ എപ്പോഴും തന്നെ ഓഡറ് ചെയ്യുന്നത് നിങ്ങളുടെ ഹോട്ടലിൽ നിന്നായത് കൊണ്ടാണ് അങ്ങനെ ഓഡർ ചെയ്തത് ഇത്രയും നേരമാായിട്ട് അത് കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ നോക്കി നിന്നു മടുത്തു നമുക്ക് ഒരു സാധനം സമയത്ത് കിട്ടണ്ടേ ആ എങ്കിലും ഇവിടെ കൊണ്ടു വന്നു തരാം എന്നായിരുന്നു ഹോം ഡെലിവറി ആയിരുന്നു ഹോം ഡെലിവറി ആയിരുന്നു ഹോം ഡെലിവറി ആയിരുന്നു അപ്പം ഞങ്ങൾ ഈ പറഞ്ഞത് പോലെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ നിന്ന് വരാൻ വേറെ ആരും ഇല്ലായിരുന്നു നിങ്ങളുടെ ഹോട്ടലിനെ വിശ്വസിച്ചു ഓഡർ ചെയ്തതാണ് എല്ലാം എന്തു ചെയ്താലും കൃത്യ സമയത്ത് തന്നെ എത്തുന്നതായിരുന്നു ഇന്ന് അ ത് വന്നിട്ടുമില്ല അഞ്ച് മണിക്കുള്ളിൽ ഗെസ്റ്റ് വന്നാൽ നമുക്ക് നാണക്കേടല്ലേ ആ ഞങ്ങൾക്ക് ഫ്രഷായിട്ടും നല്ല ചൂടായിട്ട് തന്നെ സാധനം കിട്ടണേ ആ ഓക്കെ ആം പരമാവധി നേരത്തെ എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഞങ്ങൾക്ക് സ്പെഷൽ ഗസ്റ്റ് ആയിട്ടുള്ള ആളുകൾ വരുന്നതാണ് അപ്പം അവർക്ക് നമ്മൾ അവർ പറഞ്ഞ അവരുടെ ഒരു ടേസ്റ്റിന് അനുസരിച്ചുള്ള ഫുഡ് ആയിരുന്നു ഓഡർ ചെയ്തത് നമ്മൾക്ക് ഓരോ കോൺഫിഡൻസ് ഓരോ കടയെ കുറിച്ചു ഓരോ കോൺഫിഡൻസ് ഉണ്ടല്ലോ അപ്പം നിങ്ങളുടെ കടയിൽ നിന്ന് കിട്ടുന്ന ഫുഡ് എപ്പോഴും വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതും ആയതു കൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഓഡർ ചെയ്തത് കേട്ടോ എത്രയും പെട്ടെന്ന് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കണം ആ അപ്പം നിങ്ങൾ അത് ഞങ്ങൾ ഇവിടെ നിന്ന് ഓഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഓഡറിൻ്റെ കസ്റ്റമേഴ്സ് വിളിക്കുന്ന ഓഡർ അനുസരിച്ചു നിങ്ങൾ അവിടെ എഴുതി വയ്ക്കുന്നില്ലേ ഏ ആ അപ്പം അതിന്

അതിൻ്റെ കൂട്ടത്തിൽ ആ ഫ്രൈഡ്രൈസ് കൊടുത്ത് വിടുന്ന കൂട്ടത്തിൽ കുറച്ചു രണ്ട് ടൈപ്പ് ഗ്രേവി പറഞ്ഞിട്ടില്ലേ ആ രണ്ട് ടൈപ്പ് ഗ്രേവിയും കൂടെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണേ ആ ഗ്രേവി വയ്ക്കണം പിന്നെ പൊറൊട്ടയുടെ കൂടെയും ഗ്രേവി വയ്ക്കണം ആ പൊറോട്ട ഇരുപത്തി അഞ്ചെണ്ണം ആയിരുന്നു പറഞ്ഞത് അതെല്ലാം നല്ല ഫ്രഷായിട്ടുള്ളത് തന്നെ വയ്ക്കണം കാരണം ഇത് അകലെ നിന്ന് വരുന്ന ആളുകളാണ് അവർക്ക് നമ്മുടെ ഇവിടത്തെ ഫുഡ് ആണ് കൂടുതൽ താൽപ്പര്യം പ്രത്യേകിച്ചു പൊറോട്ട എന്തെങ്കിലും കാരണവശാൽ ഇഷ്ടമില്ലാതെ വന്നു കഴിഞ്ഞൂ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളോടുള്ള ഒരു മതിപ്പ് പോവും അതുകൊണ്ട്

ഉണ്ട് അല്ലേ ആ അപ്പം അതുകൊണ്ട് തന്നെയാണ് പുറത്ത് നിങ്ങളുടെ ഹോട്ടലിന് നല്ല ഒരു പേര് ഉളളതാണ് അപ്പം നമ്മൾക്ക് ഞങ്ങൾ സ്ഥിരം കസ്റ്റമേഴ്സ് എന്നു പറയുമ്പോൾ നിങ്ങളുടെ മുമ്പോട്ടുള്ള പോക്കെന്ന് പറയുമ്പോൾ ഞങ്ങളെപ്പോലെ ഉള്ളവരുടെ സഹകരണം കൂടെയുണ്ടെങ്കിൽ അല്ലേ നിങ്ങൾക്ക് നല്ല രീതിയിൽ പോവാനായിട്ട് സാധിക്കുകയുള്ളു എത്രയും പെട്ടെന്ന് അഞ്ച് മണിക്ക് ഉള്ളിലായിട്ട് എത്തിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ താങ്ക് യു വരി മച്ച് ഓക്കെ